ആ ഹലോ മേഡം നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി മുടങ്ങിയിരിക്കുകയാണ് നിങ്ങളത് പുതുക്കേണ്ടുന്ന സമയമായിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ എത്രയും പെട്ടെന്ന് പുതുക്കേണ്ടതാണ് എന്താ മേഡം അതിങ്ങനേ മുടക്കിയിട്ടിരിക്കുന്നത് മേഡം അങ്ങ മേഡം അങ്ങനെ പറയരുത് നമുക്ക് ഇതു വെച്ച് ധാരാളം ഉപയോഗങ്ങളുണ്ട് എന്തെന്നു വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമയത്തെങ്കിലും നമുക്കിത് വളരെയധികം യൂസ്ഫുള്ളാകും പൈസ എപ്പോഴായാലും നമുക്ക് അത് ഇതിൻ്റെ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റുകൾ ഒരുപാട് പുതിയ സ്കീമുകളും മറ്റും നിലവിൽ വരുന്നുണ്ട് അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഞാൻ ശരിയാക്കി തരുന്നതായിരിക്കും അതു കൊണ്ട് മേം എത്രയും പെട്ടെന്നിത് റിന്യൂ ചെയ്തു തുടങ്ങേണ്ടതാണെന്നു അറിയിക്കുന്നു മേം നിങ്ങൾക്കിത് വെറുതേ തോന്നുന്ന കാര്യമാണ് ഇത് റിന്യൂ ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കെന്തെങ്കിലും ആക്സിഡെൻ്റോ മറ്റു പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരുപാട് മറ്റേ മറ്റേ സ്ഥലങ്ങളേ പോലെ തന്നെ ഒരുപാട് സ്കീമുകൾ മറ്റ് ഇതിലേക്കു വരുന്നതുണ്ട് അപ്പോൾ ഓൾഡ് കസ്റ്റമേഴ്സിനെല്ലാം ഈ സ്കീമിലൂടെ കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് അതു കൊണ്ട് ഒരു ഒരു വിധത്തിലും നിങ്ങളിത് നിർത്തരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം ആ മേഡം മേഡം നിങ്ങളിത് പെൻ്റിങ്ങാക്കി ഇട്ടിരിക്കുന്നതിലൂടെ നിങ്ങളിതിത്രയും നാളും അടച്ചതിന് യാതൊരുവിധ ഉപയോഗവും ഇല്ലാതായിപ്പോകുകയാണ് ചെയ്യുന്നത് അതു കൊണ്ട് നിങ്ങൾ കുറച്ച് കുറേശെ കുറേശെ അടച്ച് ഇത് മെയ്ൻ്റെയിൻ ചെയ്തു പോകുന്നതിലൂടെ നിങ്ങൾക്കിത് എപ്പോഴായാലും ഇതൊരു ബെനിഫിറ്റുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ വെറുതേ തോന്നുന്നതാണ് നിങ്ങൾക്കിത് പറ്റത്തില്ല എന്നു നിങ്ങൾക്ക് വെറുതേ തോന്നുകയാണ് അതു കൊണ്ട് എന്തായാലും ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അറിയിക്കുന്നത് ത് ഇതിൽ നിന്നും മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റും എല്ലാ വിവരങ്ങളും ഞാൻ ഉടൻ തന്നെ സെൻ്റ് ചെയ്തു തരുന്നതായിരിക്കും